വിൽ നിന്ന് നല്ല അഭിപ്രായം ലഭിച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു അടുത്തുള്ള ഒരാൾക്ക് ചുരിദാർ തയ്ച്ചു കൊടുത്തു അവര് അതിൽ ഞാൻ ഡിസൈൻ ചെയ്തു കൊടുത്തു ആ ഡിസൈൻ ചെയ്തുകൊടുത്ത ഡിസൈൻ വർക്ക് കണ്ട് അവര് പറഞ്ഞു നല്ലതായിട്ടുണ്ട് അന്ന് എൻ്റെ കഴിവിനെ അവര് നല്ലതായിട്ട് അപ്രീശിയേറ്റ് ചെയ്തു എൻ്റെ അനിയത്തിക്ക് ചുരിദാർ തയ്ച്ചു കൊടുത്തു അത് നല്ല മോഡൽ ചുരിദാറായിരുന്നു അവർക്ക് അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് അവര് പറഞ്ഞു പിന്നെ ഏതെ ഡ്രസ്സ് തയ്ക്കുക മാത്രമല്ല അതിൽ ഡിസൈൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒത്തിരി പ്രൊഫഷണലായിട്ട് തയ്ക്കാൻ പഠിച്ചിട്ടില്ലെങ്കില്ക്കൂടി എൻ്റെതായ രീതിയില് നല്ല രീതിയില് ഞാൻ ഡ്രസ്സുകൾ തയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് നല്ല അഭിപ്രായം ആൾക്കാർ പറയാറുണ്ട് പിന്നെ തുണിവച്ച് ഫ്ലവറുകള് തുണിവച്ച് ഫ്ലവറുകള് നിർമ്മിച്ച് ഞാന് ഡെക്കറേറ്റെയ്തു കൊടുത്തിട്ടുണ്ട് ആ ഫ്ലവര് നമുക്ക് ഫ്ലവർ വേസ് ഉണ്ടാക്കാനും നമ്മളതുവച്ച് ഫ്ലവര് വേസ് ഉണ്ടാക്കി അവർക്ക് വീട് ഡെക്കറേറ്റിയ്യാൻ സഹായകമാകുന്ന രീതിയില് ചെയ്ത് വർക്കിയ്തു കൊടു കൊടുക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ആണെങ്കില് കൂടി ഡ്രസ്സ് നമ്മുടെ മുത്തുകള് സിക്വൻസ് എന്നിവ പിടിപ്പിച്ച് നമുക്ക് ചെയ്യാം വർക്ക് ചെയ്യാൻ പറ്റും ആ ചെയ്ത വർക്കുകള് ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ ഏതു കാര്യവും നമുക്ക് നല്ല രീതിയിൽ ചെയ്തുകൊടുക്കാൻ സാധിക്കും അഭിപ്രായം നല്ല അഭിപ്രായവും നമുക്ക് ലഭിക്കും പിന്നെ പല കളറുകളിലുള്ള തുണികളും സാധനങ്ങളും നമുക്ക് ലഭ്യമാണ് അപ്പോള് ആ കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സുകള് എടുത്ത് ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് നല്ലതായ രീതിയില് ഇഷ്ടപ്പെടുന്നുണ്ട് അത് അതുപോലെ തന്നെ ഈ കമ്മലുകള് ത്രെഡ് വർക്കുകള് അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കമ്മലുകളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ നല്ലതാണെന്നു പറയ പറയാറുണ്ട് എൻ എനിക്ക് എൻ്റെ എൻ്റെ ഡ്രെസ്സ് തന്നെ എൻ്റെ കൈ കൊണ്ട് നിർമ്മിച്ച് ആണ് ഞാൻ ആദ്യം ഇട്ടത് അത് കഴിഞ്ഞാണ് മറ്റുള്ളവർക്ക് കൊടുത്തെ അപ്പോള് എൻ്റെ ഡ്രെസ്സുകൾ തന്നെ അത് നല്ല രീതിയില് നല്ലതാണെന്നുകണ്ട് ആൾക്കാര് അവർക്കും ഡ്രെസ്സ് തയ്ച്ചുതരാൻ എന്നോട് പറയാറുണ്ട് എനിക്ക് എൻ്റെ കഴിവിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക് ഉള്ളത് പക്ഷേ എന്നെങ്കിൽ കൂടിയും എൻ്റെ കഴിവുകളെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടവും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് വസ്ത്രങ്ങളും അതുപോലെതന്നെ കമ്മല് മാല മുതലായവയുടെ ഉപയോഗവും ആൾക്കാർക്ക് കൂടിയിട്ടുണ്ട് അപ്പോള് ആ കമ്മലുകളും മാല വള അതുപോലുള്ള നമ്മള് മുത്തുകള് ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കിക്കൊടുക്കുമ്പോള് അവർക്ക് ഭയങ്കരം ഇഷ്ടവുമാണ് സന്തോഷവുമാണ് കടകളിലൊക്കെ ചെന്നാല് നമ്മള്ക്ക് ഓ ഓ ഓ എത്രയാ നമുക്ക് ഇപ്പോള് പറയാൻ പറ്റത്തില്ല അത് നല്ല സാധനം ആണോ എന്നൊന്നും എങ്കില്ക്കൂടി നമ്മള് നിർമ്മിച്ചു കൊടുക്കുമ്പോള് നമ്മള്ക്ക് അത് നല്ലതാണെന്നു പറയാൻ സാധിക്കും